ഹലോ ഇത് പെയിൻ്ററ് അൻഷാദല്ലേ പുൽപ്പറ്റേതേ ആ എൻ്റെ വീടൊന്ന് പേയ്ൻ്ററ്റടിച്ചണച്ച്

ഒരു രണ്ടായിരം വരും രണ്ടായിരം രണ്ടായിരത്തി ഒരുന്നൂറിൻറ്റെടേലക്കെ വരും ഇരുപ ലിറ്ററ് എത്രയാവും

ആ അപ്പോൾ ഏഷ്യൻ ആ ഏഷ്യൻ പെയ്ൻറ്റ്സില്ലേ ആ ഏഷ്യൻ പെയ്ൻറ്റ്സുണ്ടായോട്ടാ അത് നല്ലതാണ്

ഞാൻ ടീവീൽ കണ്ടേക്കണ് ഒരഞ്ചാറേഴെട്ടെണ്ണം ആയിട്ടുണ്ടാവും ചളി ആ സെയ്ഡിലക്കെ കുറച്ചുണ്ട് പൂപ്പലൊക്കെ ആ അപ്പോൾ ഇതിന് പറ്റിയ പണിക്കാരെ ഇങ്ങളറേൻജ് ചെയ്യൂലേ

ആ അല്ല പരിപാടി ആ ഇപ്പം അടുത്തൊരു കല്ല്യാണം വരണുണ്ട് ആ അപ്പോൾ ഈ പണിക്കാരുടെ ഫുഡ്ഡിനും മറ്റേതിനും മറിച്ചേനൊക്കെയുള്ള ചിലവ് ആ ചോറാവണാട്ട് തന്നുണ്ട് പറക്കാട്ട്

ആ ചാർത്തൊണ്ടല്ലോ ചാർട്ടൊണ്ടായോണ്ട് ആ എന്നാൽ വീട്ടാരെല്ലാരുമുണ്ടാവും എന്നാൽ ഓക്കേ